ഹലോ ആരാണിത് ജോർജ് ഹിയർ ആ

ആ നമ്മുടെ കയ്യിലുണ്ടല്ലോ ആ അനൂപിന് ഉദ്ദേശം എത്ര സ്ക്വയർഫീറ്റ് വേണ്ടി വരും ഒരു ഒരു ഷട്ടറ് മതിയോ രണ്ട് ഷട്ടറ് വേണോ ആ രണ്ട് ഡബിളായിട്ടുള്ളതുണ്ട് സിംഗിളായിട്ടുള്ളതുണ്ട് ആ പാർട്ടീഷൻ തിരിക്കാത്തതുണ്ട് എങ്ങനെ വേണേലും ഉണ്ട് നമുക്ക് ഏത് പറ്റിയത് വേണേലും നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റഡിയിലുണ്ട് ആ ആ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഒരു നാനൂറോ എണ്ണൂറോ എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരുമായിരിക്കും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആ എന്നാ കടയാ ഇന്ന് തുറക്കുന്നേന്ന് ആ കാർഷിക കാർഷിക കർഷകർക്ക് വേണ്ട ഇൻ ആ ഇൻപുട്ട്സ് കൊടുക്കുന്നതല്ലേ കൊള്ളാം നല്ല കാര്യം നമ്മുടെ കാർഷികമേഖലയിലത് നല്ല ഡെവലപ്പ് ചെയ്യും കേട്ടോ അതിന് സാധ്യതയുള്ള നല്ല കെട്ടിടങ്ങളുണ്ട് നല്ല സ്ട്രോംഗായിട്ടുള്ള ആ റോഡ് സൈഡ് വേണം അല്ലേ ആ അപ്പം അങ്ങനെ വരുമ്പം ഇച്ചിരി റെൻറ്റ് കൂടുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ സ്പേസുണ്ട് കാരണം പാർക്കിംഗിപ്പോൾ എല്ലാവർക്കും ആവശ്യമാണല്ലോ അതുകൊണ്ടങ്ങനത്തേതുണ്ട് ഇല്ലാത്തതുണ്ട് അപ്പം റെൻറ്റിച്ചിരി കൂടൂമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്നാൽ ഒരു ദിവസം ഇറങ്ങിയാൽ നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം സ്ഥലവും എല്ലാം ഉണ്ട് നമ്മൾ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽനിന്ന് അഡീഷണൽ വല്ലതും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യിക്കാം ബാക്കിയുള്ള നോർമൽ ഒരു കടയ്ക്ക് വേണ്ട സാധനസാമഗ്രികൾ പോയിൻറ്റുകളെല്ലാം നമ്മൾ ആ എന്നാ എത്രയാ എത്ര എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെൻറ്റ് എത്ര എത്ര വരെ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറയണോ നിങ്ങൾ നിങ്ങളുടെ ആണല്ലേ എണ്ണൂറ് ഇത് വരുമ്പോഴത്തേന് ഒരു നാലായിരം രൂപയും അമ്പതിനായിരം ആണ് സെക്യൂരിറ്റി അനൂപ് കാർഷികമേഖലക്കൊക്കെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുപ്പതേൽ നിർത്താം നമുക്ക് ഏതായാലും വന്ന് കണ്ട് നമുക്ക് കണ്ടിട്ടിഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേണ്ട പോലെ ചെയ്യാം അല്ലെങ്കിലതിൽ കുറഞ്ഞതുണ്ട് ഉള്ളിലോട്ട് മാറിയാൽ നമുക്കത്രയും സ്പേസ് ആ ആ ആ ആ അത് ആ അത് പാർക്ക് ചെയ്യാം അത് ലോഡ് ഇറക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കകത്തോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോവാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് ഒരാളാക്കീട്ട് തന്നെയാ ആ ഇവിടെ യൂണിയൻ ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മളിത് ഞാൻ ലോക്കലായതുകൊണ്ട് നമ്മൾ പറയുന്നിടത്തൊക്കെ നിൽക്കും നമ്മൾ ചെറിയ തോതിലൊക്കെ വല്ല അങ്ങനെയുള്ള അങ്ങനെ വല്യ പ്രോബ്ലം ഒന്നും വരുകയില്ല കാരണം നമ്മളറിയുന്നവരാ രണ്ട് യൂണിയൻകാരാ മെയിനായിട്ടുള്ളത് നേതാക്കന്മാരെ ഒക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ആ പ്രോബ്ലം വരുകയില്ല അതൊക്കെ കൈകാര്യം മാത്രം അല്ല അഗ്രികൾച്ചർ ഇൻപുട്ട്സല്ലേ നമുക്കൊരു പ്രത്യേക പരിഗണനയുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് വേണ്ടപോലെ എല്ലാം ചെയ്യാം നിങ്ങൾ വന്ന് കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എഗ്രിമെൻറ് എഴുതി വേണ്ട നടപടിക്രമം അത് എന്നാണെന്നുള്ള ഡേറ്റ് ഒന്നാംതീയ്യതി മുതലോ അല്ലെങ്കിൽ പതിനഞ്ചാംതീയ്യതി മുതലോ എങ്ങനെ വേണേലും ചെയ്യാം നമുക്ക് കേട്ടോ ഓക്കെ ഓക്കെ മിസ്റ്റർ അനൂപ് താങ്ക് യൂ വെരി മച്ച് ഓക്കെ ബൈ ബൈ